ഞാൻ പത്രം വായിക്കുമ്പോൾ ആദ്യമായി സ്പോർട്സ് പേജുകളാണ് ആദ്യം ബ്രീഫ് ചെയ്ത് വായിക്കാൻ നോക്കുന്നത് ക്രിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ പിന്നെ ഒളിമ്പിക്സ് അങ്ങനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെകുറിച്ച് സ്പോർട്സ് പേജിൽ തന്നെ ബ്രീഫ് ആയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കും പിന്നെ ഫ്രണ്ട് പേജ് മാക്സിമം ഫ്രണ്ട് പേജ് ആണ് തുടങ്ങി വായിക്കാൻ ശ്രമിക്കുന്നത് മെയിൻ കണ്ടന്റുകൾ ചും വായിച്ച് വായിച്ച് മുന്നോട്ട് മുന്നോട്ട് വായിക്കും അതുകഴിഞ്ഞിട്ട് പേപ്പറുകൾ മറിച്ച് മെയിൻ വാർത്തകൾ ആയിട്ടുള്ള ഈ പൊളിടിക്സ് പിന്നെ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കി വായിക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നീട് വേറെ എന്തെങ്കിലും പത്രങ്ങൾ കിട്ടിയത് തന്നെ തന്നെ ആണെങ്കിലും പരസ്യങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇത്ര രൂപ മുടക്കി ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലൊക്കെ ആയിട്ട് പരസ്യങ്ങൾ കാണുന്നുണ്ട് അത് ഇത്രയും രൂപ മുടക്കിയിട്ടാണ് എന്താണ് അതിൽ പത്രത്തിൽ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലൊക്കെ വരുന്ന പരസ്യം എന്ത് രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് മലയാള മനോരമ പത്രങ്ങളിലൊക്കെ വരുന്ന ഈ കോമിക്സും പസ്സിലുകളൊക്കെ അതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും ചെറിയ ചെറിയ ആശയമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് വായിക്കാറുണ്ട് പത്രത്തിൽ നമ്മുടെ പതിവ് രീതികൾ എന്നുവെച്ചാൽ എപ്പോഴും ബാക്ക്സൈഡ് തുറന്ന് സ്പോർട്സ് പേജ് നോക്കുക എന്നുള്ളതാണ് എപ്പോഴും പതിവ് ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ട് പേജിൽ ഉള്ള പ്രധാന ഹെഡിങ്ങുകൾ തലക്കെട്ട് വായിക്കുക അതൊക്കെയാണ് പതിവായി നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ പത്രത്തിലുള്ള ഡയഗ്രം അത് വരച്ച കലാകാരൻ്റെ സൃഷ്ടി അത് നമ്മളത് മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി അത് എപ്പോഴും ശ്രദ്ധിച്ച് നോക്കാറുണ്ട് പത്രത്തിലുള്ള കലാകാരൻ്റെ കഴിവ് അത് അയാളുടെ ഭാവന അത് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് അത് നമുക്ക് നോക്കി അറിയാൻ പറ്റുന്നുണ്ട് വാർത്തകളിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ചില വാ പത്രത്തിലുള്ള രണ്ട് മൂന്ന് പത്രം ഞാനെടുത്ത് വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ അതിൽ രണ്ട് തരം ഈ പൊളിടിക്സ് എന്ന് മാറ്ററിൽ രണ്ട് തരം വാർത്തകൾ രണ്ട് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്ത കണ്ടൻറുകൾ മാറ്റി മാറ്റി വരുന്നത് ശ്രദ്ധിക്കാറുണ്ട് പത്രങ്ങളിൽ തമ്മിൽ വാശികൾ ഉണ്ടെങ്കിലും നമ്മൾ ജനങ്ങൾ വായിക്കുമ്പോൾ പത്രത്തിലുള്ള ചില ആശയങ്ങൾ നമ്മുക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് പത്രങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ ഡെയിലി ഡെയിലി കാണുന്ന രീതികളുള്ള മാറ്ററുകൾ മാറി മാറി വരുന്നത് നല്ലതായിട്ട് ഇപ്പം സൂചിപ്പിക്കാറുണ്ട് പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള പത്രങ്ങളിൽ ഡെയിലി ശൈലിയുള്ള വാർത്തകളായിരുന്നു അതായത് വാർത്ത കണ്ടൻറുകൾ മാറുന്നുണ്ടെങ്കിലും അതിൻ്റെ രീതി ആയിരുന്നു അറിയാൻ പറ്റുന്നത് പത്രത്തിലുള്ള പസ്സിൽസുകൾ നമ്മൾ കൂടുതൽ വായിക്കാറും അയിൻ്റെ രീതികൾ നമ്മൾ നോക്കാറുമുണ്ട് അയിൻ്റെ അയിൻ്റെ പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്റർമാരുടെ കഴിവ് കഴിവുകൾ നമ്മൾ പസ്സിൽസിലൂടെ നമ്മൾ അയാളെ കലാകാരൻ്റെ കഴിവുകൾ നമ്മൾ നോക്കാറുമുണ്ട്